ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ ആളുകളും ഒത്തുചേരുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആണ് കൂടുതലായിട്ടും എല്ലാ മതക്കാരും വന്നിട്ട് ഒത്തുചേരുന്നത് ഇപ്പം ഒരേ മതത്തിലുള്ള പാർട്ടികളിഷ്ടം പോലെയുണ്ട് അതിലൊന്നുമങ്ങനെ വലിയ വലിയ രീതിയിലുള്ള ഒത്തു ചേരലോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലാത്ത പാർട്ടികളിലൊക്കെ കൂടുതലായിട്ടും ഒത്തുചേരുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് കൂടുതലായിട്ടും കല്യാണങ്ങളിലാണ് കൂടുതലായിട്ടും പല ആൾക്കാരേയും വിളിക്കുക ഇപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനിസുണ്ട് അപ്പം അവരെയൊക്കെ നമ്മള് കൂടുതലായിട്ട് നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവരുടെ എന്താ പറയുക നമ്മളിപ്പം തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അങ്ങനെ ഹിന്ദുക്കള് അങ്ങനെ പല ആൾക്കാരുണ്ടാവും അപ്പം അവരെയൊക്കെ നമ്മള് കൂടുതലായിട്ടും വിളിക്കും പിന്നെ പല ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും അവരെയെല്ലാം നമ്മള് കല്യാണത്തിന് വിളിക്കും അപ്പം നമ്മളെല്ലാവരും കല്യാണത്തിനൊത്തു ചേരുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക മതമോ അങ്ങനത്തെ ഇതൊന്നും ഓർത്തിട്ടായിരിക്കുകയല്ല നമ്മള് ഒത്തു ചേരുക നമ്മള് ഒരു മനുഷ്യനാണെന്നുള്ള ഒരു രീതിയിലാണ് കൂടുതലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക മെയിനായിട്ട് അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത് പിന്നെ നമ്മള് ഹൗസ് വാർമിംഗ് അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികള് നമ്മളുടെ കോഴിക്കോട് ജില്ലയില് നടക്കുന്നുണ്ട്